എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തൊഴിലാണ് മത്സ്യ ബന്ധനം അഥവാ മീൻ പിടിക്കൽ കാരണം ഇത് മറ്റു തൊഴിലിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും രസകരമാണ് കാരണം പുഴയിൽ പോവുക പരിസ്ഥിതിയെ തൊട്ടറിയുക

ചൂണ്ടയിട്ടും വലവിരിച്ചും ഒക്കെയാണ് നമ്മൾ മത്സ്യ ബന്ധനം നടത്താറുള്ളത് ആളുകളുമായി പോയി അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് പുഴകളിൽ പോയി മത്സ്യങ്ങളെ പിടിക്കുകയും അവയെ കറി വെച്ച് കഴിക്കുകയും ചെയ്യാറുണ്ട് ഇതോടൊപ്പം ഏറ്റവും രസകരമായ നിമിഷങ്ങൾ തന്നിട്ടുള്ളത് മത്സ്യബന്ധനം നടത്തി ആ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറു മത്സ്യങ്ങൾ ആണെങ്കിലും വലിയ മത്സ്യമാണെങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത് മറ്റു തൊഴിലുകളിൽ നിന്ന് എനിക്ക് കിട്ടാറില്ല ഇങ്ങനെ ഏറ്റവും രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ മത്സ്യ ബന്ധനത്തിലൂടെ ആണ്